ഹലോ ആഹ് പറയൂ നമ്മുടെ ആലപ്പുഴ ആലപ്പുഴ ഹൃദയഭാഗത്ത് വേണോ അതോ ആലപ്പുഴ സിറ്റി വിട്ട് ശകലം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി വേണോ ആഹ് ഹൃദയ ഭാഗത്താണെങ്കില് ഒരു സെന്റിന് ഇരുപത്തഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം രൂപായെങ്കിലും ആവും ഒരു സെന്റിന് ചന്താ ചന് ആലപ്പുഴ ആഹ് ആഹ് ആഹ് എന്നൂടെ സോത്രം എന്നാൽ അത് നമ്മുടെ ആലപ്പുഴ പട്ടണത്തിന്റെ ജേ ബി ജംഗ്ഷന്റവിടെന്ന് ഇങ്ങോട്ട് മാറിയാണ് എന്തിനാണ് സാര് എന്തിനായിരുന്നു പിന്നെ ഒരു വഴി അവിടെന്ന് കിഴക്കോട്ട് വരുമ്പോള് കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ വലിയ റിസോര്ട്ടാണ് കൊടുക്കാനിട്ടിരിക്കുന്നത് നാല് വശോം ബൗണ്ടറിയൊക്കെ തിരിചിട്ടിരിക്കുന്ന വലിയ റിസോര്ട്ട് നിങ്ങൾ വന്നാലത് കാണിക്കാം അത് കാണിച്ചിട്ട് നിങ്ങൾക്ക് താല്പ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാം ഇല്ല വെള്ളമൊന്നും കയറത്തില്ല നല്ല ഒ ശുദ്ധമായ കോപ്രേറ്റീവ് വാട്ടറ് കിട്ടുന്നുണ്ട് കോ കോപ്രേഷന് വാട്ടറ് അത്പോലെ കാണാൻ സൗകര്യം ഉണ്ട് ന്റെ തൊട്ടട്ത്ത് തന്നെ നദീലേയ്ക്ക് വെള്ളം ഒലിച്ച് പോകാനൊള്ള ഓടയെണ്ട് ഇല്ലെന്ത്കൊണ്ടും നിങ്ങക്ക് അനുയോജ്യമായൊരു സലമാണെന്നാണ് എനിക്ക് തോന്നുന്ന് നിങ്ങള് നേരില് വന്ന് കാണ് ഓക്കെ മാലിന്യം മാലിന്യ സംസ്കരണം നമ്മൾ നമുക്ക് ചെയ്യാന് സ്ഥലം ഉള്ളത് കൊണ്ട് നമ്മളത് അവിടെത്തന്നെ സംസ്കരിക്കേണ്ടി വരും മാലിന്യ പ്ലാന്റ്റൊണ്ടാക്കി ഇവിടെത്തന്നെ സംസ്കരിക്കേണ്ടി വരും ആഹ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അവർ പ്രതീക്ഷിക്കുന്നത് ഒരു സെന്റിന് അത് നമുക്ക് പിന് ആഹ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണൊരു സെന്റിനവർ പ്രതീക്ഷിക്കുന്നത് പിന്നെ അവിടെ വന്നതിന് ശേഷം അതിന് തൊണ്ണൂ തൊണ്ണൂറ് സെന്റെങ്കിലും കണ്ടേക്കും ആ പ്രതീക്ഷിക്കുന്ന പിന്നെ നമ്മൾ സംസാരിച്ചെന്തെങ്കിലും ചെറിയ മാറ്റ കേറ്റങ്ങള് സംഭവിക്കുന്നെങ്കില് സംഭവിക്കും ആ ആ ഒന്ന് വിളിച്ചിട്ട് ഒന്ന് വിളിച്ചിട്ട് പോര് നാളെ മൂന്ന് മണിക്ക് ശേഷം ഞാന് ഇവിടെ എത്തിക്കോളാം കാരണം എനിക്ക് ആ നേരിട്ട് നേരിട്ട് കാണാം നേരിട്ട് കാണാം എനിക്ക് വേറെ രണ്ട് മൂന്ന് കേസ് കെട്ട്കളൂടൊണ്ട് അതൊന്നറ്റന്റ് ചെയ്യാനുണ്ട് രാവിലെ അതിന്ശേഷം നിങ്ങൾ വിളിച്ചാൽ മതി ഞാനവിടെ വണ്ടിയെ വന്നോളാം അതെ അതെ അതെ വേറെ സ്ഥലങ്ങൾ കിടപ്പുണ്ട് അതിത്ര ഏരിയ ഇല്ലന്നേ ഉള്ളൂ അതൊക്കെ ഒരു അറുപത് സെന്റ് സ്ഥലം അങ്ങനെയൊക്കൊരു അൻപത് സെന്റ് സ്ഥലം ഒക്കെ വരത്തൊള്ളു ഇത് കുറച്ച് വലിയ സ്ഥലമാണ് അത്കൊണ്ട് ആഹ് വൈകുന്നേരം ഓ ശരി വൈകുന്നേരം ആയിക്കോട്ട് വൈകുന്നേരം നമുക്ക് നേരില് മീറ്റ് ചെയ്യാം